ഹലോ ഹലോ ഹലോ ആഹ് കേൾക്കുന്നുണ്ട് ആഹ് പറഞ്ഞോ ആഹ് ഞാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയിരുന്നു ഞാനന്ന് ഞാൻ ട്രൈ ചെയ്തിരുന്നു നിങ്ങളെ ഈ നമ്പറല്ലേ ഇപ്പോൾ ഉള്ളത് ആഹ് ഞാൻ രണ്ടു വട്ടം വിളിച്ചിരുന്നു ഒന്ന് സ്ക്കൂൾ വരെ വരേണ്ടി വരും വളരെ കുറവാണല്ലോ മാർക്ക് കുട്ടിയ്ക്ക് എന്താത് പഠിക്കുന്നൊന്നുമില്ലേ വീട്ടിൽ വന്നിട്ട് ആഹ് വളരെ കുറവാണ് ഞാൻ അവനെ അങ്ങനെ അല്ല പ്രതീക്ഷിച്ചത് എക്സാം പേപ്പർ കണ്ടപ്പോൾത്തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാരണം മാത്സിനൊക്കെ വളരെ വീക്ക് ആണ് കുട്ടി സ്കൂളിൽ വന്നിട്ട് അത്യാവശ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഏൻസർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എക്സാമിനെന്താ മാർക്ക് എക്സാമിനാണല്ലോ നമുക്ക് മാർക്ക് വേണ്ടത് എന്താ ചെയ്യാ നിങ്ങൾ തീരുമാനത്തിലെത്തണം കാരണം വീട്ടിൽ വന്നിട്ടെന്താ വേഗം വന്നിട്ട് കളിക്കാൻ പോക്കാണോ ആഹ് ഹോംവർക്ക് ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ ആഹ് ഇവിടെ വന്നിട്ട് പിന്നെ ബുക്ക് എടുക്കാൻ മറന്നു പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോ വർത്തമാനം ആണല്ലോ പറയല് തവണ ഓരോ എക്സ്ക്യൂസ് ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട് ബാക്കി എന്റെ സബ്ജക്ട് മാത്രമല്ല ബാക്കിയെല്ലം ഭയങ്കരമായിട്ട് മാർക്ക് കുറവാണ് ആഹ് ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് വന്നപാടെതന്നെ പഠിക്കാൻ പറ കുറേയൊക്കെ കളിക്കാൻ ഒക്കെ എന്തിനാണ് പോകുന്നത് കളിയ്ക്കാൻ പോക്ക് വൈകുന്നേരം ആഹ് ഹോംവർക്ക് ചെയ്തതുകൊണ്ട് മാത്രമായില്ലല്ലോ ചേട്ടാ പഠിക്കണ്ടേ അന്നന്നേരം പഠിപ്പിക്കുന്ന കാര്യം അന്നന്നേരം വന്ന് പഠിക്കാൻ പറ കുട്ടീനോട് കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് ഹോംവർക്കിന് വേണ്ടിയിട്ട് ഒരു അര മണിക്കൂർ മാത്രം ടൈം നോക്കുകയാണ് ബാക്കി പിന്നെ ഓരോ സബ്ജക്ട് പഠിക്കാൻ പറയുക ടൈം ടേബിൾ വെച്ചിട്ട് രാവിലെയൊക്കെ എണീപ്പിക്ക് വിളിച്ച് എണീപ്പിക്ക് രാവിലെ ഒരു അഞ്ചു മണിക്ക് അലാറം ഒക്കെ വച്ചിട്ടേ ഇപ്പോഴേ നോക്കിയാലല്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും റെഡി ആവുള്ളു എത്ര മണിക്ക് എണീക്കും രാവിലെ ആഹ് ഒരഞ്ച് മണിക്ക് അലാറം ഒക്കെ വച്ചിട്ട് എണീപ്പിക്ക് കേട്ടോ ആഹ് ഫോണിൽ കളി ഉണ്ടാവും ആഹ് ഫോൺ ഒരു അര മണിക്കൂറൊക്കെ കൊടുത്താൽ മതി ഫോണിൽ കളി തീരെ വേണ്ടായെന്നല്ല എന്നാലും നോക്കിയിട്ട് നിങ്ങൾ ചെയ്യ് കേട്ടോ നിങ്ങളെന്തായാലും സ്ക്കൂൾ വരെ ഒന്ന് വാ എന്തായാലും എപ്പോഴാണ് വരിക തിങ്കളാഴ്ച വാ എന്നാൽ ഓഫീസിൽ വന്നാൽ മതി കേട്ടോ ആഹ് രാവിലെ വാ ഓഫീസിൽ വന്നിട്ട് എന്നെ ചോദിച്ചാൽ മതി ഓക്കേ ശരി